ഇപ്പോൾ നമ്മൾ മൃഗങ്ങളോട് സഹകരണം വച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സഹകരണം കാര്യങ്ങളൊക്കെ പുലർത്താറുണ്ട് നമുക്ക് നമ്മൾക്ക് മെയിൻ ആയിട്ടും സഹകരണമല്ലേ വേണ്ടത് നമ്മൾക്ക് മൃഗത്തോട് നല്ല രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അതിനു കറക്ട് ടൈംമിനു ഭക്ഷണം കൊടുക്കുക കറക്ട് ടൈംമിനു പുല്ല് കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുണ്ട് പശുവുണ്ട് ആടുണ്ട് കോഴിയുണ്ട് എല്ലാം ഏകദേശം എല്ലാ ജീവികളും എൻ്റെ വീട്ടിലുണ്ട് കാരണമെന്താ വച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ ജീവികളെയും വളർത്തുന്നത് എന്താ വച്ചു കഴിഞ്ഞാൽ എന്റെയൊരു സന്തോഷം കൂടിയാണ് കാരണം നമ്മളെ ഒരു മൈന്റെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏതു നേരവും നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മളൊരു മൃഗത്തെ വളർത്തി കഴിഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മൈന്റ് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മളതിനെ എന്തെങ്കിലും കൊഞ്ചിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മൾക്ക് പെട്ടെന്നു ടൈം പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്ക പെട്ടെന്നു പോവുകയും ചെയ്യും അപ്പോൾ നമ്മളവരോട് നല്ല രീതിയിൽ എപ്പോഴും സ്നേഹത്തോടെയൊക്കെ പെരുമാറുക ഇപ്പം മനുഷ്യരെക്കാട്ടും കൂടുതൽ നല്ലതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ തന്നെയാണ് കാരണമെന്താണെന്നു വച്ചാൽ അവരാണെങ്കിൽ നമ്മളോട് ചീത്തയും പറയാനോ നമ്മളെ തല്ലാനോ അങ്ങനെയൊന്നും വരൂകയേയില്ല നമ്മളിപ്പം എന്തു പറഞ്ഞാലും നമ്മളെ വാലാട്ടി കാണിക്കും അങ്ങനത്തെയൊരു ബന്ധമാണ് ഈ മൃഗങ്ങൾക്കുള്ളത് അപ്പോൾ അവരോടു നല്ല രീതിയിൽ നമ്മളെപ്പൊഴും ബന്ധപ്പെട്ടിരുക്കുന്ന ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം